ആ ഇത് റിലാക്സ് റെസ്റ്റോറന്റല്ലേ ഞാനേ കുറച്ച് മുന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ദാമു എന്നാണ് പേര് ഇപ്പോൾ ഞാനവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടി സാധനങ്ങൾ കൂടുതലായിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞനെൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്നു രണ്ട് ആൾക്കാരും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇപ്പോഴാണ് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അതാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് ഓക്കെ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വച്ച് കഴിഞ്ഞാൽ ഞാനാദ്യം അഞ്ച് ചപ്പാത്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു പതിനഞ്ച് ചപ്പാത്തി ആക്കിയിട്ട് ഒന്ന് കൂട്ടണം ആ ആ പിന്നേ പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതായത് നാന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മാറ്റിയിട്ട് എനിക്കൊരു ചിക്കൻ അതായത് ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവില്ലേ അതായത് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും മതി ഓക്കെ ആ അതെ അതെ അതെ അങ്ങനാണെങ്കിൽ അതൊന്ന് ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടു വന്നോളു കേട്ടോ സമയം വൈകരുത് പെട്ടന്ന് ഒന്നെത്തിക്കണേ ഓക്കെ